ഓവനില് പാചകം ചെയ്യുന്ന കേക്ക് ഗ്രിൽഡ് ചിക്കൻ മറ്റേ ഫിഷ് ഫ്രയൊക്കെ ഓവനില് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഒക്കെ കുറച്ചിട്ട് അതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഒര് ഓവനുണ്ടായിരുന്നെങ്കിലിതൊക്കെ ചെയ്ത് നോക്കാമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഓവനൊരണ്ണം കിട്ടി കഴിഞ്ഞപ്പോൾ ഓവൻ പ്രവർത്തിപ്പിക്കാനാണ് പേടി ഇതൊക്കെ സംഭവം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് പക്ഷേ ഓവൻ പ്രവർത്തിപ്പിക്കാനുള്ളൊരു പേടി കൊണ്ട് ചെയ്യാൻ ശ്രമിക്കാൻ ശ്രമിക്കാറില്ല പിന്നെ കേക്കിൻ്റെ ഒക്കെ മിക്സിങ്ങ് മിക്സിങ്ങിൻ്റെ ആണോ അതോ ഓവൻല് നമ്മള് അതൊക്കെ ടെമ്പറേച്ചർ കറക്ട് ചെയ്ത് വയ്ക്കുന്നതിൻ്റെയാണോ കൂടുതലും ഭയമെന്ന് പറയുന്നത് നമ്മള് ഓവൻ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോളാണ് അത് ശരിയായി ഇല്ലെങ്കിൽ ടീവിയിൽ ഒക്കെ കാണുന്നത് പോലെ പെട്ടന്ന് കത്തി പോകുവോ പൊട്ടി തെറിക്കുവോ ഇങ്ങനെ ഒക്കെ ഉള്ളൊരു ഭയം കൊണ്ടാണ് ഓവൻ ഓൺ ചെയ്യാനും പേടിയാവണത് ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു ഒരു പ്രവശ്യമൊക്കെ വച്ച് നോക്കി പക്ഷേങ്കില് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ തോന്നിയത് വേഗം ഓഫ് ചെയ്തു പിന്നെ അതങ്ങ് കുളവായി ഇപ്പം ഓവൻ പ്രവർത്തിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മെയ്നായിട്ട് ഇത് ചെയ്യാനുള്ള മടിക്ക് ഉള്ള കാരണം